സ്വന്തം ബിസിനസ്സിന്റെ വളര്ച്ചയെന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ വളര്ച്ചയായിരിക്കാമല്ലോ ഉദേശിച്ചിരിക്കുന്നത് അപ്പോൾ വാര്ത്താ മാധ്യമങ്ങളൊത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ വളര്ച്ചയിലും കുഞ്ഞുങ്ങളുടെ പഠനമേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം ഒത്തിരി വാര്ത്താമാധ്യമം ഉണ്ട് സഹായമുണ്ട് അത് ക്ലാസിലാണെങ്കിലും മറ്റും പഠനത്തിന്റെ സമയത്താണെങ്കിലും അവരുടെ ജി കെ സംബന്ധമായ കാര്യങ്ങള്ക്കാണെങ്കിലും സയന്സ് ശാസ്ത്രം സോഷ്യല് എന്ന് വേണ്ട എല്ലാ മേഖലകളിലും വാര്ത്താമാധ്യമങ്ങള്ക്ക് സ്ഥാനമുണ്ട് കര്ഷകര്ക്കും ചെറുകിടവ്യവസായങ്ങൾക്കും സഹായം എത്തിച്ച് കൊടുക്കുന്നത് മാഗസിനുകളുണ്ട് മാനിപ്പോരോ പ്രോഗ്രാമുകളുണ്ട് അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ കര്ഷകര്ക്ക് മാധ്യമകര്ഷകര്ക്ക് സാമ്പത്തിക ഉപദേശം നല്കുന്ന സഹായം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്കൂളുകളിലാണെങ്കില് പച്ചക്കറി പച്ചക്കറി നടീലുണ്ടായതാണെങ്കിൽ വെജിറ്റബിള് ഗാര്ഡനുണ്ട് അതുവഴി മറ്റുള്ളവര്ക്കും സഹായം സ്കൂളിനും കുട്ടികള്ക്കും സഹായമായിട്ടുള്ള വ്യവസായ മേഖലയായിട്ടാണ് അത് വളര്ന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ രീതിയില് പറയുകയാണെങ്കിൽ അത് അവരുടെ ഹോസ്റ്റലിലേക്ക് വേണ്ട ഫുഡ് അവരുടെ പച്ചക്കറി തോട്ടങ്ങളില്നിന്ന് കിട്ടുന്ന അവർ തണ്ണിമത്തന് പിന്നെ പച്ചപ്പയർ വെണ്ടയ്ക്ക വഴുതന തക്കാളി എന്ന് വേണ്ട ഇഷ്ടം ധാരാളം പച്ചക്കറികളെ ഉല്പ്പദിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്കൂള് അതുവഴി ഞങ്ങള് കുഞ്ഞുങ്ങള്ക്കും ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കുമുള്ള ആഹാരമുണ്ട് അതിൽപരമായിട്ട് ഞങ്ങള്ക്കും ചില രീതിയിലുള്ള സഹായം സ്കൂളില്നിന്ന് കിട്ടുന്നുണ്ടങ്ങനെ വ്യവസായമായ മുന്നോട്ട് വരുവാന് സ്കൂള് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അതുപോലെത്തന്നെ മാഗസിനുകൾ സ്കൂള് മാഗസിനെയാണ് ഉദേശിക്കുന്നതെങ്കില് മാഗസിനുകൾ വഴി ഞങ്ങള് ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നുണ്ട് സ്കൂളിലെ എല്ലാവിധ ഇന്ഫോമേഷന് മാഗസിനില്ക്കൂടെ കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ വേണം പ്രോഗ്രാമുകൾ ഇഷ്ടംപോലെ ക്ലബ് വഴിയൊത്തിരി പ്രോഗ്രാമുകളുണ്ട് പല പല ക്ലബ്ബുകളുണ്ട് സയന്സുണ്ട് പിന്നെന്താ എൻവിയോണ്മെന്റല് പ്രോഗ്രാമുകളുണ്ട് സോഷ്യല് ക്ലബ്ബുകളുണ്ട് ഇംഗ്ലീഷ് ക്ലബ്ബുകളുണ്ട് ആര്ട്സ് ക്ലബ്ബുകളുണ്ട് എന്ന് വേണ്ട എല്ലാവിധ ക്ലബ്ബുകൾ വഴിയും ഞങ്ങള് കുഞ്ഞുങ്ങൾക്ക് പല പല പ്രോഗ്രാമുകൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുന്നുണ്ട് ഇനിയും പല മേഖലകളിലേക്കും സ്പോര്ട്സ്പരമായിട്ടും മറ്റും പിന്നെ അക്കാഡമി തരത്തിലും ഒത്തിരി അറിവുകൾ ഞങ്ങള് കുഞ്ഞുങ്ങള്ക്ക് പകര്ന്നുകൊടുക്കാറുണ്ട് അങ്ങനെ മാധ്യമങ്ങള് വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ വാര്ത്താമാധ്യമങ്ങളാണ് ഞങ്ങള് ഏത് രംഗത്തും പ്രചാരത്തില് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവ കാര്ഷികപരമായും ചെറുകിട വ്യവസായപരമായും സാമ്പത്തികമായ മേഖലകളിലും ഞങ്ങള് ധാരാളം ഉപദേശങ്ങള് കുഞ്ഞുങ്ങളിലൂടെ മറ്റുള്ളവര്ക്ക് എത്തിച്ചുകൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങള് കൂടുതല് മുന്നോട്ട് വരുവാനായിട്ട് ശ്രമിക്കുന്നു